വര്ഷങ്ങളായി മലപ്പുറം ജില്ല മാറിയതെങ്ങനെയാണ് പ്രത്യേകിച്ചും അതിന്റെ സമ്പത്ഘടനയെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും കാര്യത്തിൽ അതായത് മലപ്പുറം ജില്ല മാറിയത് ആദ്യ കാലങ്ങളിൽ മലപ്പുറം ജില്ലയിലെ ആളുകള്ക്ക് വിദ്യാഭ്യാസം നന്നേ കുറവായിരുന്നു അവർ ആ സമയങ്ങളിൽ അവർ ചെയ്തത് കയ്യിൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ മാത്രമായിരുന്നു അവരുണ്ടായിരുന്നത് വിദ്യാഭ്യാസത്തെ വലിയ രീതിയിലൊന്നും അവർ വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഇവർ സൗദിയിലും മറ്റുള്ള വിദേശ ഗള്ഫ് കണ്ട്രീസില് പോയി അത്യാവശ്യം നല്ലവണ്ണം സമ്പാദിച്ചതിന് ശേഷമാണ് ഓരോരുത്തരും വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാന് തുടങ്ങിയത് ഇപ്പോൾ ഏറ്റവും കൂടുതല് കുട്ടികള് പഠിക്കുന്നതും ഏറ്റവും കൂടുതല് കുട്ടികൾ പത്താം ക്ലാസിലായാലും പ്ലസ് ടുവിലായാലും എ പ്ലസ് വാങ്ങുന്നതുവരെ മലപ്പുറം ജില്ലയിലെ കുട്ടികളാണ് അപ്പോൾ ആ രീതിയിലേക്ക് മാറി ആദ്യ കാലഘട്ടങ്ങളിലായിരുന്നു മലപ്പുറത്ത് ഹയര് എജൂകേഷന് മേഖലയിൽ നിന്നിരുന്നത് ഇപ്പോൾ അവരെല്ലാവരും മുന്പന്തിയിലെത്തി ആ കാലഘട്ടത്തിൽ ഇവർ സമ്പാദിക്കാന് വേണ്ടി തിരിഞ്ഞു സമ്പാദ്യമായി സാമ്പത്തിക മേഖലയില് സെക്വേര്ഡ് ആയി ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ കേരളത്തിലെ മറ്റുള്ള ഡിസ്ട്രിക്റ്റിനെ അപേക്ഷിച്ച് എത്രയോ മുന്പന്തിയിലാണ് ഇരിക്കുന്നത് അതുപോലെത്തന്നെ വ്യവസായങ്ങളായാലും അതുപോലെത്തന്നെ അടിസ്ഥാന സൗകര്യങ്ങളായാലും സമൂഹത്തില് വളരെ അധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും സാമ്പത്തികം അടിസ്ഥാന സൗകര്യം എല്ലാ മേഖലയിലും നന്നായിട്ടുതന്നെ മാറ്റങ്ങളുണ്ട്